ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും മെയിനായിട്ടുള്ള വരുമാന സ്രോതസ്സ് എന്നു പറഞ്ഞാൽ അവിടെ പരമ്പരാഗതമായി കൈത്തറി തൊഴിലാണ് അവിടെ ആൾക്കാർ ഏർപ്പെട്ടിരിക്കുന്നത് അവർക്ക് മുണ്ട് നെയ്യാൻ അറിയാം പിന്നെ മുണ്ടിൽ ഓരോ ഡിസൈൻ ഒക്കെ വച്ച് നേരിയതും ഇങ്ങനത്തെ സംഭവങ്ങൾ ഒക്കെ അവർ ഉണ്ടാക്കും അപ്പോൾ ഈ കൈത്തറി വസ്ത്രങ്ങൾ നല്ല ഡിമാൻ്റ് ഉള്ള ഒരു സംഭവമാണ് ബാംഗ്ലൂരിലായാലും വേൾഡിൽ തന്നെ ആയാലും ഓണ സമയത്ത് ബാലരാമപുരത്തേക്ക് ഒരു വിഭാഗം ആൾക്കാർ കൈത്തറി വസ്തുക്കൾക്ക് വേണ്ടി വരാറുണ്ട് ഇതാണ് മെയിനായിട്ട് അവിടുത്തെ ജനങ്ങളുടെ ഒരു സ്രോതസ്സ് ബാക്കി ഉള്ളവരെല്ലാം ദിവസ വേദന തൊഴിലാളികളാണ് അവർ കട്ടിള പണിക്ക് പോവും ബിൽഡിംഗ് പണിക്ക് പോവും പെയിൻ്റിങ്ങ് പണിക്ക് പോവും എലക്ട്രിക്ക് പണിക്ക് പോവും എല്ലാ ജോലിക്കും പോവും ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള തൊഴിൽ അവസരങ്ങൾ എൻ്റെ നാട്ടിൽ ഉള്ള